ഇപ്പോൾ ഗ്രാമപ്രദേശത്ത് സർക്കാരിൻ്റെ ഭരണത്തിൽ ഭയങ്കര അഭാവം ആണുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ചികിത്സ കിട്ടാണ്ട് മരിക്കുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഇവിടെ ഉള്ള ആൾക്കാർ മരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ മദ്യം കുടിച്ചിട്ടാണ് കൂടുതലായിട്ടും എല്ലാവരും മര മരണപ്പെടുന്നത് അപ്പം മദ്യം നിരോധിക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മായവും കാര്യങ്ങളൊക്കെയാണ് പച്ചക്കറികളിലൊക്കെ വിഷം അടിച്ചിട്ട് അങ്ങനെ ഒക്കെയാണ് അപ്പം പുറം നാട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ട് വരുന്നത് അപ്പം ഭയങ്കര വിഷവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പം എല്ലാവരും കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസേവനങ്ങൾ ഇപ്പം വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ സർക്കാരും എന്താണ് പറയുക ഇപ്പം ഓരോ നി മെമ്പർമാരാണെങ്കിലും ഇപ്പം എല്ലാവരും എം എൽ എമാർ ഒക്കെയാണെങ്കിലും വരിക അല്ലാണ്ട് ഒരു കാര്യത്തിനും അവർ നമ്മളിപ്പം എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് നമ്മളിപ്പം അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെ നമ്മളെ അവർ കുറേ നേരം നാൾ നടത്തിച്ചിട്ടൊക്കെയാണ് അവർ എന്തും നേടുള്ളൂ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെയുണ്ട് പിന്നെ ആരോഗ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരോഗ്യം ഇത് നമ്മളെ ഇവിടെ മാനന്തവാടിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് ഹോസ്പിറ്റൽ എന്ന് പേര് മാത്രമേ ഉള്ളൂ മെഡിക്കൽ കോളേജ് എന്ന് പക്ഷേ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം അവിടെയില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയുണ്ട് പിന്നെ സാമൂഹ്യമായിട്ട് ഇവർ അങ്ങനെ ഇടപെടാറോ അങ്ങനെയൊന്നുമില്ല